ഞാന് ഇപ്പോൾ എന്റെ കുട്ടിക്കാലത്ത് കളിച്ച ഗെയിംസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഗെയിമുകൾ ഉണ്ട് പല മെ എന്റെ മെമ്മറബിളായിട്ട് എനിക്ക് തോന്നുന്നത് എന്താ പറയുക സാറ്റ് കളി പിന്നെ കള്ളനും പോലീസും കളി അങ്ങനത്തെ കളികളൊക്കെയാണ് എനിക്കും കൂടുതലായിട്ടും എന്താ പറയുക ഇഷ്ടപ്പെട്ട കളികള് പിന്നെ അതില് പ്രത്യേകിച്ച് അങ്ങനെ നിയമങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാവുന്ന നിയമങ്ങളും കാര്യങ്ങളും തന്നെയാണ് അതിനാത്തുള്ളത് അപ്പോൾ എന്താ പറയുക അതെല്ലാം നല്ല അനുഭവം തന്നെയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് കാരണം നമ്മൾ ഇപ്പോൾ കാ അതായത് ഒരാളായിരിക്കും ക്യാച്ചറ് അയാള് എത്ര മെമ്പേഴ്സ് ഉണ്ടോ അതിനനുസരിച്ച് എണ്ണണം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു പത്ത് പേരൊക്കെയാണെങ്കിൽ ഒരു നൂറു വരെ എങ്കിലും എണ്ണേണ്ടി വരും അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ നിയമം പിന്നെ എണ്ണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് പറയും കുറ്റിച്ചോട്ടിലെ അതായത് എണ്ണുന്നതിന്റെ ചോട്ടിൽ ഒന്നും ഒളിക്കാൻ പറ്റില്ല എവിടേലും മാറി തന്നെ ഒളിക്കണം അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു പിന്നെ സാറ്റ് വെച്ച് ആരെങ്കിലും നമ്മള് തന്നെ കണ്ടുപിടിച്ച് സാറ്റ് വെക്കുകയാണെങ്കിൽ ഓക്കെ വേറെ ആരെങ്കിലും വന്നു സാറ്റ് വെക്കുകയാണെങ്കിൽ പിന്നെയും നമ്മള് തന്നെ എണ്ണി എത്ര പേര് സാറ്റ് വെച്ചു അതിനനുസരിച്ച് എണ്ണണം എണ്ണീട്ട് പിന്നെയും അങ്ങനെ കളിച്ചു കളിച്ച് അങ്ങനെ പോകണം മൂന്നുവട്ടം എണ്ണിയിട്ടും ആരെയും മൊത്തായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കി ആദ്യം കാണുന്ന ആള് പിന്നെ ക്യാച്ചർ ആവേണ്ടി വരും അങ്ങനെയായിരുന്നു നമ്മള് കളിച്ചോണ്ടിരിക്കുന്നത്